മൃഗ വളർത്തലില് കർഷകർ അഭിമീകരിക്കുന്ന ചില പൊതുവായ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മൃഗ വളർത്തലിന് അതിന്റേതായ മെയിൻ്റയിനൻസ് ഉള്ളതുകാരണം തന്നെയാണ് മൃഗങ്ങളെ അവരുടെ രോഗങ്ങളും അതുപോലെതന്നെ മറ്റ് തീറ്റയിലുള്ള വില കൂടുതലും ഒക്കെയാണ് ഇന്നത്തെ മൃഗ വളർത്തലില് കര്ഷകര് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം രോഗബാധിതമായ മൃഗങ്ങളൊക്കെയും ചത്തൊടുങ്ങുന്നതും അതുപോലെത്തന്നെ വേണ്ടത്ര പോഷകാഹാരങ്ങളുടെ കുറവും അതുപോലെതന്നെ തീറ്റയ്ക്കുള്ള വിലവര്ദ്ധനയുമൊക്കെ തന്നെയാണ് വെല്ലുവിളികൾ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്നത് തോട്ടത്തിലെ തൊഴിലാളികളും അതുപോലെതന്നെ മറ്റു തൊഴിലാളികളുമായിരിക്കും അവർക്കതിൻ്റേതായിട്ടുള്ള കൂലിയും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്കതറിയാം എന്നിരുന്നാലും നമ്മൾ നോക്കുന്ന അത്രയും അവർ നോക്കുന്നതല്ല എന്നുള്ളത് ഉറപ്പാണ് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മോശം സംഭവങ്ങൾ നിങ്ങള്ക്ക് സംഭവിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ മോശപ്പെട്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും മൃഗങ്ങളെ പരിപാലിക്കുന്നതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതിനെ മനുഷ്യരെപ്പോലെത്തന്നെ സമയാക്രമം ഭക്ഷണവും അതുപോലെത്തന്നെ രോഗപ്രതിരോധവുമൊക്കെ നൽകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നിരുന്നാലും അതൊരു സന്തോഷകരമായ കാര്യം കൂടി തന്നെയാണ്